വർഷങ്ങളായിട്ട് വയനാട് ജില്ല മാറിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ അതിന്റെ സമ്പത്ത് വ്യവസ്ഥ സൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഇതിലാണ് ആദ്യം എന്നൊക്ക പറഞ്ഞാൽ ഇവിടെ ഫുൾ അതായത് കാടാണ് ഫുൾ വന്യജീവിയൊക്കെ ജീവിക്കുന്ന കാടാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ ആദ്യം അതായത് ആദിവാസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരിങ്ങനെ കുടിയേറി കുടിയേറി ഇപ്പോൾ ആദ്യം ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിനും എല്ലാത്തിനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെയായി പിന്നെ വയനാട് ജില്ലയിൽ ഇപ്പോൾ കൂടുതലും ഒരുപാട് വീടുകളും കാര്യങ്ങളും എല്ലാമായി അപ്പോൾ എന്ന് വെ സമ്പത്ത് വ്യവസ്ഥയൊക്കെ നല്ല അടിപൊളിയായിട്ട് മാറികൊണ്ടിരുന്നു പിന്നെ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഓല മേഞ്ഞ വീട് അങ്ങനത്തെ അതായത് ചാണകം തളിച്ച വീടൊക്കെയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഓല മേഞ്ഞ വീടും ചാണകം തളിച്ച വീടും ഒക്കെ കാണാൻ വളരെ അതായത് വളരെ ഇതാണ് ഇപ്പോ അങ്ങനെ കാണാനൊന്നുല്ലാ അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് നില കെട്ടിടങ്ങൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപാരം ഒക്കെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ടായി പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് മാൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല